ഹലോ ഞാനീ വാക്സിൻ ഓർഡർ ചെയ്തത് എൻ്റെ പ്രദേശത്തത് കിട്ടാത്തതുകൊണ്ടാണ് അപ്പോള് അതിനകത്ത് ഡെയ്റ്റ് ഒരാഴ്ചയായിരുന്നു കൊടുത്തത് ഒരാഴ്ചയ്ക്കകം കിട്ടുമെന്നാണ് ഒ കിട്ടിയത് അപ്പോള് എനിക്കെത്രയും പെട്ടെന്നത് കിട്ടേണ്ടതാവശ്യമാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് അതെനിക്ക് എത്തിച്ചുതരണം എങ്കിൽ മാത്രമേ എനിക്ക് അത് മറ്റുള്ളവർക്ക് വാക്സിൻ എടുക്കാനെക്കൊണ്ട് കഴിയുകയുള്ളൂ അപ്പോള് എത്രയും പെട്ടെന്ന് അതെനിക്ക് അയച്ചുതരുക കാരണം അത് ഡിലേ ആയിപ്പോയാൽ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടായിരിക്കും കറക്റ്റ് സമയത്തിനുള്ളിലതെനിക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട്

എല്ലാ എണ്ണവും എനിക്ക് കറക്റ്റായിരിക്കണം വാക്സിൻൻ്റെത് എത്രയും പെട്ടന്നെനിക്ക് അയച്ചുതരേണ്ടതാണ്